ഹലോ ചിത്രാ മിസ്സല്ലേ അതെ ടീച്ചറെ ഞാൻ അവിടെ ടീച്ചറിൻ്റെ സ്കൂളി നാലാം ക്ലാസിൽ പഠിക്കുന്ന ശ്രീജേഷിൻ്റെ അമ്മയാണ് ആ ഇന്ന് മോൻ്റെ ഡയറീല് ഓണത്തിൻ്റെ എക്സാം ഡേറ്റ് എഴുതി വിട്ടായിരുന്നു അപ്പം ടീച്ചറെ അപ്പം എനിക്ക് ടീച്ചറിനോട് ചോദിക്കാനുള്ളത് ഒരു നാല് ദിവസത്തെ ലീവാണ് മോന് വേണ്ടത് ചോദിക്കാനായിട്ട് വിളിച്ചത് അതെന്തന്ന് വെച്ചാൽ ആ ടീച്ചറ് അത് എക്സാം ദിവസവാ മോന് ലീവ് വേണ്ടത് നമ്മുടെ ആ നമ്മൾ ഒരൂ ഫാമിലി ട്രിപ്പ് പോവുന്നു അപ്പം നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്കൊണ്ടാണ് ടീച്ചർ അപ്പം അതിന് പറ്റുവോ എങ്ങനെയാന്ന് അറിയാൻ എക്സാമായോണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും അറിയാം ടീച്ചർടെ എന്തേലും ആ ആ എ ഈ ഓക്കെ ടീച്ചർ അല്ല നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം വീട്ടിൽ ഫാമിലി ട്രിപ്പായത് കൊണ്ട് നമുക്ക് ആരെയും ഏൽപ്പിക്കാൻ ആരും കാണത്തുവില്ല അല്ലെങ്കിൽ ആരേലു ഉണ്ടായിരുന്നെങ്കിൽ ഏൽപ്പിച്ചിട്ട് പോവാമായിരുന്നു ഇപ്പം നമ്മളെല്ലാവരും പോവുന്നോണ്ടാണ് ആ ടീച്ചർനെ വിളിച്ചൊന്ന് ചോദിച്ചത് അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് വേറേ പ്രശ്നം ഇല്ലല്ലൊ ടീച്ചർ അതെ അതെ ഓക്കെ ടീച്ചർ അല്ലാ ഈ നാല് ആ നാല് ദ നാല് ദിവസം ആയത് കൊണ്ടാ അതും എക്സാം ദിവസം ആയത് കൊണ്ടാണ് ടീച്ചർ അല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ക്ലാസാണെങ്കിലും കുഴപ്പമില്ല എന്ത്ച്ച ഇന്നാണ് മോന് ഡയറീല് ഡേറ്റ് എഴുതി വിട്ടത് എക്സാമിൻ്റെ

ഓക്കെ ടീച്ചർ അപ്പം ഈ നാല് ദിവസം ഏത് നാല് ദിവസമെന്ന് വെച്ചാൽ ആ നാല് ദിവസത്തെ കണക്കാക്കി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതിയാവുവല്ലോ

ആ അത് അറിയാം ടീച്ചർ പക്ഷേ ഇത് എക്സാമിന് മു ഓണം കഴിഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ വട്ടം എക്സാം നടന്നത് അപ്പം ഈ വട്ടം അങ്ങനെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് ഇപ്പം ഓണത്തിന് മുന്നെ നടത്തുവെന്ന് വിചാരിച്ചില്ല ടീച്ചർ അങ്ങനെയാരിപ്പോൾ ആ ഇനി എന്തായാലും അതിനെ ക മ്പ സൂഷിച്ചോളാം ടീച്ചർ ഓക്കെ താങ്ക് യു ടീച്ചർ